ആ ഹലോ ഞാന് ന്ത് ഒരു വീട് വയ്ക്കണം അപ്പം സ്ഥലം വാങ്ങണേനെ പറ്റിയൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ടൗൺൻ്റെ ടൗൺൻ്റെ ആ ടൗൺൻ്റെ സൈഡാണ് അത്രയ്ക്ക് ടൗണാവാനും പാടില്ല അങ്ങനെയൊരിതായിരുന്നു ആ റോഡ് സൈഡ് വേണം സ്കൂളാണേലും കുഴപ്പമില്ല നമുക്കൊരു ഹോസ്പിറ്റല് കടകള് സ്വൽപ്പം അത്ര മതി

ഒരുപാട് റേറ്റും ഒരുപാട് റേറ്റൊന്നും ആവാനും അത്ര പോവാനും പാടില്ല ഹോസ്പിറ്റല് കാര്യങ്ങളൊന്നും നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഇല്ല എനിക്കൊര് ആറോ ഏഴ് സെൻറ് സ്ഥലം വാങ്ങീട്ട് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്

ഒറ്റ സെൻറ് ആ അത്രയൊള്ളു അല്ലേ

ആ ഇതെവിടെയായിട്ട് വരും

ആ ടൗണിലാകുമ്പോൾ പിന്നെ ഇപ്പോൾ ആ ആ ആ അത് വെള്ളവൊക്കെ കിട്ടാൻ വെള്ളവൊക്കെ എങ്ങനായിരിക്കും കിണറുണ്ടല്ലേ അതില് വെള്ളം ഉണ്ടാവുമല്ലോ എപ്പഴും വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവുമല്ലോ അല്ലേ ആ അതെ വേറെ പൈപ്പ് കണക്ഷൻ എന്തേലുമുണ്ടോ

ആ അപ്പോൾ എന്തായാലും കിട്ടുവല്ലോ ആ ഈ നാളെ നമുക്കെന്നാൽ തിങ്കളാഴ്ച്ച പോയാലോ ഞായറാഴ്ച്ച എനിക്കാണെൽ ലീവാണ് നിങ്ങൾക്ക് ലീവായിരിക്കില്ലേ ആ ആണൊ അപ്പോൾ എന്നാൽ ഓക്കെയെന്നാൽ ആ അത് നോക്കാം

ഇല്ല ടൗണിൽ ടൗണാ അതാണ് നമുക്കൊര് സൗകര്യം എന്ത് കാര്യത്തിനും പെട്ടന്നെത്തിചേരുക എന്നുള്ളത് കൊണ്ടാണെ പിള്ളേർക്ക് പഠിത്തവും നമുക്ക് നോക്കണമല്ലോ

നമ്മള് കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല പിള്ളേർക്കും വൈഫിനൊക്കെ അവർക്ക് കൂടുതലും സെറ്റ് ആവണപോലെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ടൗണില് നോക്കാനായിട്ട് ആ നമ്മള് എന്തെങ്കിലൊ കാട്ടീട്ട് പോയിട്ട് വരും അവര് അങ്ങനെയല്ലല്ലോ അപ്പോൾ നമുക്കെന്നാൽ ഞായറാഴ്ച്ച എന്നാൽ ഇല്ലിലില്ല വീട് ഉള്ളത് കുഴപ്പമില്ല ചുറ്റ് വട്ടം വീടൊക്കെ വേണം വീട് വേണം നമുക്ക് ഒരാവശ്യത്തിന് വിളിച്ചാൽ ഒരാള് വേണ്ടേ

ഓക്കെ ഓക്കെ ഞായറാഴ്ച്ച നോക്കാം എന്നാൽ ആ ശരി